എൻ്റെ ഫോണിൽ ബാലൻസ് കുറവാണ് എത്രയും പെട്ടെന്നെനിക്ക് റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്യാനുള്ള ഓഫറുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം അൺലിമിറ്റഡ് കോളും അതേപോലെത്തന്നെ അൺലിമിറ്റഡ് എസ് എം എസ്സും പെർ ഡേ റ്റു ജി ബി ഡാറ്റായും ഇൻറ്റർനാഷണൽ കോളിങ്ങും എനിക്കാവശ്യം ഉണ്ട് വേറെ എന്തൊക്കെ ഓഫറുകളുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാം അതനുസരിച്ചെനിക്ക് റീചാർജ് ചെയ്യാം അതേപോലെത്തന്നെ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ആറ് മാസത്തേക്ക് റീച്ച് റീചാർജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചാർജിങ്ങ് നിലവാരം പിന്നെ പണമടക്കുന്ന രീതി ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ഇതിലേതെങ്കിലും രീതിയിൽ ഞാൻ പണമടക്കാം എൻ്റെ മൊബൈൽ നമ്പർ ഒമ്പത് മൂന്ന് രണ്ട് രണ്ട് എട്ട് എട്ട് പൂജ്യം പൂജ്യം ആറ് ആറ് ഇതാണ് അപ്പോൾ ഒന്ന് റീചാർജ് ചെയ്താൽ നന്നായിരുന്നു